സാങ്കേതിക വിദ്യകളുടെ സഹായം കാരണം ബിസിനസ്സുകൾക്ക് വളരെ അധികം പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറച്ചൂടെ വിശദമായിട്ട് സംസാരിക്കുക ആണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ബിസിനസ്സുകളെക്കാളും സാങ്കേതിക വിദ്യകൾ വന്നത് കൊണ്ട് തന്നെ വളരെ എളുപ്പമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഒരു ബിസിനസ്സ് തുടങ്ങാനും അതായത് ആരംഭിക്കാനുമായിട്ട് മനുഷ്യർക്ക് സാധിച്ചിട്ടുണ്ട് ഈ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള റെജിസ്ട്രേഷൻ കാര്യങ്ങൾ ആണെങ്കിൽ പോലും ഇതിനെപ്പറ്റിയുള്ള നിയമ പാഠങ്ങളെപ്പറ്റി പഠിക്കാൻ ആണെങ്കിൽ പോലും നേരത്തെയുള്ള കാലങ്ങളിൽ മനുഷ്യർക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇതിനെപ്പറ്റി അറിയാനും പഠിക്കുനും ഒക്കെ ആയിട്ട് ബട്ട് പതിയെ പതിയെ സാങ്കേതിക വിദ്യ വിദ്യയുടെ സാങ്കേതിക വിദ്യകളുടെ സഹായം കാരണം കൂടുതൽ മാറ്റങ്ങൾ വന്നതിലൂടെ കൂടുതൽ പോർട്ടലുകളും കൂടുതൽ ഓൺലൈൻ വെബ്സൈറ്റുകൾ വന്നതും കൊണ്ടും കൂടാണ്ട് നിയമ പാഠങ്ങളെ കൂടുതലായിട്ട് ഓൺലൈനിലൂടെ പബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട് കൂടി തന്നെ പലർക്കും ഈ ബിസിനസ്സ് കാ പരമായിട്ടുള്ള രെജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ ആണെങ്കിലും ബിസിനസ്സ് എങ്ങനെ നടത്തണം എന്നുള്ള കാര്യങ്ങൾ ആണെങ്കിൽ പോലും അവർക്ക് അത് തുടങ്ങാനായിട്ട് വളരെ ഇത് സഹായം സഹായമായിട്ടുണ്ട് നേരത്തത്തെ കാലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നിയമങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ മനുഷ്യർക്ക് കൂടുതൽ ട്രാപ്പുകളിൽ വീഴാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു പക്ഷേ ഇപ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ ഉള്ളതു കൊണ്ട് തന്നെ വഴികൾ തുറക്കപ്പെട്ടത് കൊണ്ട് ബിസിനസ്സുകൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും സ്കോപ്പും വളരെ അധികം കൂടി കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു കാണാൻ സാധിക്കുന്നു പിന്നീട് സാങ്കേതിക വിദ്യകളെ പറ്റി കൂടുതൽ വിശകലനം ചെയ്യുക ചെയ്യുക ആണെങ്കിൽ നമുക്ക് പിന്നേം പറയാൻ പറ്റുന്നത് പല തരത്തിലുള്ള ബിസിനസ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയുള്ള ഒരു ഐഡിയകൾ അതായത് ഇപ്പം ഒരാൾക്ക് ഒരു ബിസിനസ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ആണെങ്കിലും കമ്പനിപരമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആണെങ്കിലും മനുഷ്യർക്ക് നേരത്തെ ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ഇപ്പോൾ മറ്റുള്ളവരുടെ ഒരു സഹായമില്ലാണ്ട് സാങ്കേതിക വിദ്യയുടെ ഹെൽ സഹായം മൂലം ഒറ്റയ്ക്ക് ഒറ്റയ്ക്കു മനുഷ്യർക്ക് ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കുന്നു സാങ്കേതിക വിദ്യ വന്നതോട് തന്നെ രെജിസ്ട്രേഷൻ ചെയ്യുമ്പോഴും പോർട്ടലുകളിലൂടെ ദിവസം ഓരോ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾ അതായത് ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള വഴികൾ വേഗം ആക്സസ് ചെയ്യാനും ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാനും ഗ്രാൻഡ് ചെയ്യാനും ആളുള്ള ഓപ്പർച്യൂണിറ്റീസ് വന്നു നേരത്തെ അത് ഒട്ടും തന്നെ ഇല്ലായിരുന്നു ബിസിനസ്സുകളെ പറ്റി സംസാരിക്കുമ്പോൾ ലാഭവും നഷ്ടവും ഒക്കെ ഒരു ബിസിനസ്സിൽ ഉണ്ടാവുമ്പോൾ അവർ അത് റെക്കോർഡ് ചെയ്തോണ്ടിരുന്നത് ഓൺ ഹാൻഡ്സില് എഴുതിക്കൊണ്ടായിരുന്നു എങ്കിൽ അങ്ങനെയായിരുന്നു എഴുതിക്കൊണ്ട് സാധനങ്ങൾ വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സാങ്കേതിക വിദ്യയുടെ സഹായം കാരണം അവർക്ക് ബുക്സിൻ്റെ ആവശ്യമില്ലാണ്ടായി അവർക്ക് എല്ലാം കമ്പ്യൂട്ടറുകളിലൂടെ അവരുടേതായിട്ടുള്ള വഴികളിലൂടെ ഇത് നടത്താനായിട്ടുള്ള അവസരമുണ്ടായി എത്ര പഴയ കാലത്തെ റെക്കോർഡുകൾ ആണെങ്കിൽ പോലും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണെങ്കിൽ പോലും അവർക്ക് കമ്പ്യൂട്ടറുകളിൽ റെക്കോർഡ് ചെയ്ത് ഡേറ്റ കീപ്പ് ചെയ്യുന്നതിലൂടെ അവർക്ക് വളരെ അധികം സഹായമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് ഡേറ്റാ റിട്രീവ് ചെയ്യാനാണെങ്കിലും സൂക്ഷിക്കാൻ ആണെങ്കിലും ഈ സാങ്കേതിക വിദ്യ വന്നതിലൂടെ കമ്പ്യൂട്ടറുകളുടെ ഉപയോഗം കൂടുതൽ ആയതു കൊണ്ട് തന്നെ ഇവർക്ക് ഇത് ഭയങ്കരമായിട്ട് സഹായകമായി മാറിയിരിക്കുന്നു ഇത്രയും വികസനം ബിസിനസ്സിൽ ഒൺ ഉണ്ടാകാനും കാരണം സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ് ഈ വളർച്ച ഏറ്റവും കൂടുതൽ ബിസിനസ്സ് വരാനും കാരണം ഈ സാങ്കേതിക വിദ്യ അതേ രീതിയിൽ മനുഷ്യർ വേണ്ട രീതിയിൽ ഉപയോഗിച്ചത് കൊണ്ട് ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ് അതിലും ഉപരി ബിസിനസ്സുകൾ ഇന്ന് ഇത്രയും അധികം അതായത് പണ്ടത്തെ കാലത്ത് ആൾക്കാർ ബിസിനസ്സ് ചെയ്യാൻ മടിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ഇന്ന് ബിസിനസ്സുകളിൽ ഇത്രയും അധികം ആൾക്കാർ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് സാങ്കേതിക വിദ്യ വളർന്നതിലൂടെ മനുഷ്യർക്ക് ഇതിനെ പറ്റിയുള്ള അറിവുകൾ കൂടുതൽ ലഭിക്കാനായത് കൊണ്ട് തന്നെയാണ് അതിൽ ഒരു മാറ്റവുമില്ല സാങ്കേതിക വിദ്യ വന്നത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള ബിസിനസ്സ് ബിസിനസ്സ് എങ്ങനെയാണ് മനുഷ്യന് വേണ്ടത് ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിസിനസ്സ് ആരംഭിക്കുന്നത് മനുഷ്യർക്ക് ഒരു നഷ്ടമായിരിക്കും എന്ന് പറ പറയുന്നത് വളരെ അധികം തെറ്റാണ് ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് മനുഷ്യരെ അതുപോലെ ഹെൽപ്പ് ചെയ്യും ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്താൽ ലഭിക്കുന്ന സ്ട്രെങ്സും വീക്ക്നെസ്സസും ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും ഒക്കെ മനുഷ്യർക്ക് മനസ്സിലാവാൻ സാങ്കേതിക വിദ്യയിലൂടെ സഹായിച്ചിട്ടുണ്ട് ആയതിനാൽ മനുഷ്യർക്ക് കൂടുതൽ ഈ ബിസിനസ്സ് ഫീൽഡ് പ്ലാറ്റ്ഫോംസിലോട്ട് ഇറങ്ങാനായിട്ടുള്ള വഴികളും സാങ്കേതിക വിദ്യയിലൂടെ ലഭിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ നിയമ പാലനം പാലനത്തിലൂടെ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക ആണെങ്കിൽ തന്നെ ജി പേ ഫോൺ പേ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യർക്ക് പൈസ കീപ്പ് ചെയ്യാനും അവർക്ക് കിട്ടുന്ന പണങ്ങൾ കീപ്പ് ചെയ്യാനും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പ്രോപ്പറായിട്ട് ടാക്സ് അടയ്ക്കാനും ടാക്സ് എത്ര മാത്രം വേണമെന്നും ടാക്സിന് എത്ര മാത്ര ഡിഡക്ഷൻ കിട്ടുമെന്നും എക്സംഷൻ കിട്ടുമെന്നും എല്ലാം മനുഷ്യൻ മനുഷ്യർക്ക് സാങ്കേതിക വിദ്യകൾ വന്നതിലൂടെ കൂടുതൽ അറിവുകൾ ലഭിച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അത് വളരെ നിയമപരമായിട്ട് പാലിക്കാനും നിയമപരമായിട്ട് ഒരു ബിസിനസ്സ് എങ്ങനെ നടത്താമെന്നും അവർക്ക് മനസ്സിലായി തുടങ്ങി ജി എസ് ടി എന്താണെന്നും ഇൻകം ടാക്സ് എന്താണെന്നും ജി എസ് ടിയിൽ എന്തൊക്കെ സ്കീമുകളുണ്ടെന്നും ഒക്കെ മനുഷ്യർക്ക് മനസ്സിലായതും എന്ത് തരത്തിലുള്ള ലോണുണ്ടെന്നും എൻ ബിസിനസ്സിൽ നമുക്ക് എങ്ങനെ ഒക്കെ ലോൺ യൂസ് ചെയ്യാമെന്നുമുള്ള എല്ലാ കാര്യങ്ങളും മനസ് മനുഷ്യർക്ക് ഇതിലൂടെ മനസ്സിലായിരിക്കുന്നു ഇത്രയും സാങ്കേതിക വിദ്യയുടെ കോൺട്രിബ്യൂഷൻ കാരണം ബിസിനസ്സുകൾക്ക് അത്യാവശ്യം നല്ലൊരു വ്യക്തിമുദ്ര തന്നെ പതിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്